ഇന്ത്യയിലെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്ന് വെച്ചിട്ടിണ്ടെങ്കിൽ പല സ്ഥലത്തും പല കാലാവസ്ഥയായിരിക്കും ചിലപ്പം മഴയുള്ള കാലാവസ്ഥയായിരിക്കും ചിലപ്പോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലുള്ള കാലാവസ്ഥയായിരിക്കും ചിലപ്പോൾ നല്ല മഞ്ഞുള്ള കാലാവസ്ഥയായിരിക്കും ചിലപ്പോൾ നല്ല ചെറിയ ചൂടുള്ള കാലാവസ്ഥയായിരിക്കും ചിലപ്പോൾ നല്ല ചൂട് ചൂടുള്ള കാലാവസ്ഥയായിരിക്കും ചിലപ്പം നല്ല മഴയായിരിക്കും ചിലപ്പം മഴ കുറവായിരിക്കും അങ്ങനെ പല കാലാവസ്ഥയാണ് പല സ്ഥലത്തും പിന്നെ ഇന്ത്യയിൽ വെച്ചിട്ട് ഇന്ത്യയിൽ മുഴുവനായിട്ട് നമുക്കൊരു കാലാവസ്ഥ പ്രവചനം നടത്താൻ പറ്റില്ല കാരണമെന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ പല പല സംസ്ഥാനങ്ങളിലും പല രീതിലാണ് കാലാവസ്ഥ ഈ സംസ്ഥാനങ്ങൾ തന്നെ സംസ്ഥാനത്ത് പല ജില്ലകളുണ്ട് പല ജില്ലകളും പല ഏരിയകളും പല പല കാലാവസ്ഥകളാണ് ഇപ്പം നമുക്ക് കണ്ടു കൊണ്ടിരിക്കുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതു കൊണ്ടു തന്നെ നമുക്ക് ഇന്ത്യയിൽ ഇങ്ങനത്തെ കാലാവസ്ഥകളൊക്കെയാണ് ചിലപ്പം നല്ല കാറ്റ് കാറ്റും മഴയായിട്ടുള്ള കാലാവസ്ഥയായിരിക്കും ചിലപ്പം നല്ല ഇടിമിന്നലോട് കൂടിയുള്ള മഴ കാര്യങ്ങളൊക്കെയുള്ള കാലാവസ്ഥയായിരിക്കും അങ്ങനെ ഒരുപാട് കാലാവസ്ഥ ഒരു അതായത് ഒരുപാ അതായത് പല സമയങ്ങളിലും പല കാലാവസ്ഥയാണ് അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇന്ത്യയിലെ കാലാവസ്ഥ എന്താണെന്ന് നമുക്ക് പ്രവചിക്കാൻ ആവില്ല